ഇപ്പോൾ എൻ്റെ അച്ഛനമ്മമാര് എങ്ങനെയാ എങ്ങനെയാണ് പഠിച്ചതന്നൊക്കെ വച്ചാല് അവര് അത്യാവശ്യം നല്ല രീതിയില് പഠിച്ചിട്ടുണ്ടായിരുന്നു പത്താം ക്ലാസ്സ് വരെയാണ് പഠിച്ചത് അപ്പോൾ പഠിച്ചത് അപ്പം അവർക്ക് നല്ല രീതിലൊള്ള വിദ്യാഭ്യാസവും കാര്യങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴത്തെ ഒരു പത്താം ക്ലാസന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു ഡിഗ്രിക്ക് തുല്യമാണ് കാരണം എന്താന്ന് വച്ച് കഴിഞ്ഞാൽ അപ്പം നല്ല രീതിയിലുള്ള വാല്യൂവേഷനും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഗ്രസ്സ് മാർക്കോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നൽകുന്നില്ല അപ്പം അതുകൊണ്ട് അവര് നല്ല രീതിലൊള്ളൊരു വിദ്യാഭ്യാശമൊക്കെ കാഴ്ച്ച വക്കാൻ വേണ്ടീട്ടവർക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതായത് ഇപ്പം പ്ലസ്ടുവൊക്കെ പഠിക്കണങ്കില് നല്ല രീതിലൊള്ള പൈസയും കാര്യങ്ങളൊക്കെ അത്യാവശ്യമുള്ളത് കൊണ്ട് അതൊന്നും ഇല്ലാതിരുന്നവർക്ക് പഠിക്കാൻ ഒന്നും സാധിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ പത്താം ക്ലാസ് വരെ പോകുന്നത് തന്നെ വലിയൊരു കാര്യായിട്ടാണ് അവരൊക്കെ കണ്ടോണ്ടിരിക്കണത് അപ്പ പല രീതിയിലും അവര് നല്ല രീതിലൊള്ള കാഴ്ചവക്കാൻ വേണ്ടീട്ട് ശ്രമിച്ചിട്ടുണ്ടെങ്കിലും സാമ്പത്തികമായിട്ടൊക്കെ അവർക്ക് നല്ല രീതിലൊള്ള വെല്ലുവിളിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊൾ വിദ്യാഭ്യാസ സൗകര്യങ്ങളൊക്കെ കുറവായിരുന്നു അന്ന് വണ്ടികളൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ എല്ലാവരും നിർത്തിയിട്ട് വേണം പോകാനോക്കെ ആയിട്ട് അങ്ങനെ പല രീതിയിലുള്ള വെല്ലുവിളികളൊക്കെ ഉണ്ടായിരുന്നു